ഇന്ന് ഇന്ത്യയിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് വെല്ലുവിളി എന്ന് പറഞ്ഞാല് വെള്ളം തന്നെയാണ് വെള്ളവും വഴിയും തന്നെയാണ് ഇപ്പോൾ ജനങ്ങള് നേരിടുന്ന പ്രശ്നങ്ങള് അതിപ്പോൾ സർക്കാര് നടപ്പിലാക്കുക തന്നെ ചെയ്യണം സർ സർക്കാരിപ്പോൾ എല്ലാവർക്കും കുറെ പ്രദേശത്തേക്ക് ഒരുപാട് വെള്ളവും വെള്ളത്തിനുള്ള ആവശ്യവും വെള്ളത്തിനുള്ള പദ്ധതികളും അതേപോലെ റോഡുകൾക്കുള്ള പദ്ധതികളും ഒക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് എന്നാലും എല്ലാ പ്രദേശത്തേക്കുള്ള റോഡും വെള്ളവും ഒക്കെ എത്തി ചേരുമ്പം തന്നെ ഒരുപാട് സമയം തന്നെ പിടിക്കും എന്നാൽ ജനങ്ങൾക്കാണെങ്കിൽ അതുവരെ ത അതുവരെ നിൽക്കാനുള്ള ഇതില്ല എന്താന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കാട്ടിൽ കൂടെയും വഴിയില്ലാതെ ഒര് ഇടവഴി കൂടെയൊക്കെയാണ് അവര് യാത്ര ചെയ്യുന്നത് എന്നാല് അവർക്കും ഉണ്ട് ഒരാഗ്രഹം അവരുടെ വീട്ടുമുറ്റത്ത് ഒരു വാഹനം അവരുടേതായ വാഹനം അവരുടെ മിറ്റത്ത് വെ എത്തണം എന്നൊക്കെ മ ഒരുപാട് ആളുകള് അധികാര സ്വാതന്ത്ര്യം വച്ചിട്ട് അവരുടെ വീട്ടിലേക്കും അവരുടെ ആവശ്യത്തിനേക്കുള്ള വെള്ളവും അങ്ങനെയുള്ള എന്തെങ്കിലൊക്കെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നുണ്ട് എന്നാൽ പ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ആവശ്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നൊന്നും ഇല്ല